ഞങ്ങളുടെ നാട്ടിൽ ക്രിക്കറ്റ് പ്രേമികളല്ലേ ഫുട്ബോള് പ്രേമികളായതുകൊണ്ട് തന്നെയാവാം ഇവിടെ മത്സരങ്ങൾക്ക് മുന്നോടിയായി പ്രാക്റ്റീസ് നടത്തുന്നതിനും മറ്റു ആയിട്ടുള്ള സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടുകളും ഒക്കെയുണ്ട് ഇവിടെ നല്ലൊരു ശക്തമായിട്ടുള്ള ക്രിക്കറ്റ് ടീമും അതുപോലെ തന്നെ ഫുട്ബോൾ ടീമും ഒക്കെയുണ്ട് മത്സരങ്ങളിൽ മികച്ച വിജയം കൊയ്തെടുക്കാനും അവരെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് പല പല സ്ഥലങ്ങളിൽ പോയി ക്രിക്കറ്റിനെ മത്സരിപ്പിക്കാനായിട്ടും ഫുട്ബോളിൻ്റെയായാലും മത്സരങ്ങൾ നടത്താനായിട്ടും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സമ്മാനങ്ങൾ വാരിക്കൂട്ടാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടുകളും ഉള്ളതുകൊണ്ടു തന്നെ ഇപ്പോൾ എന്താണ് നാട്ടുകാർക്കായാലും അവരുടെ പരിശീലനങ്ങൽ കാണാനും അവരുടെ മത്സരങ്ങൾ കാണാനും പ്രാദേശികമായിട്ടുള്ള മത്സരങ്ങൾ കാണാനായിട്ടായാലും അവർക്ക് സാധിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ വലിയൊരു ബെനിഫിറ്റായിട്ട് മനസ്സിലാക്കാം